നവജാത ശിശുക്കള്ക്ക് വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടെന്നും വൃത്തിഹീനമായ സാഹചര്യത്തില് അസുഖം വരാതിരിക്കാനും നമ്മള് പ്രത്യേകം വീട്ടിലെ സ്ത്രീകളാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്യാറ് നമ്മളിപ്പം പുരുഷന്മാരുടെ കാര്യത്തില് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങള്ക്ക് സജഷന് കൊടുക്കാം അതായത് നമുക്ക് ഓരോ കാര്യങ്ങള് പറഞ്ഞു കൊടുക്കാം ഇപ്പം സ്ത്രീകളാണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള് നോക്കാറ് പ്രത്യേകിച്ചും നവജാത ശിശുക്കളുടെ കാര്യം പ്രധാനമായും അവരാണ് ശ്രദ്ധിക്കാറ് ഇപ്പം ഞാന് പറയുകയാണെങ്കിൽ നമുക്ക് എന്റെ അറിവിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വൃത്തിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടക്കുക കുഞ്ഞുങ്ങള്ക്ക് വേണ്ടി വൃത്തി തറ തറ എപ്പോഴും തുടച്ച് വൃത്തിയായി വെക്കുക പിന്നെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളും കാര്യങ്ങളുമെല്ലാം ഡെറ്റോളിൽ തന്നെ മുക്കി എപ്പോഴും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തു വെക്കാന് തന്നെ ശ്രമിക്കുക

അതിന്റെ തന്നെ ഈ ഈ കുട്ടികൾക്കിടുന്ന ഡയപ്പെറ് നാലു മണിക്കൂറിൽ തന്നെ ചേയ്ഞ്ച് ആക്കാനും പിന്നെ ഒത്തിരി അസുഖങ്ങളുണ്ടാവാതിരിക്കാൻ വേണ്ടി ഒത്തിരി തണുപ്പടിക്കാതിരിക്കാനും കാര്യങ്ങളും സോക്ക്സ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക കുഞ്ഞുങ്ങൾക്കെപ്പോഴും ഒരു ചൂട് ലഭിക്കുന്ന രീതിയില് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുക അമ്മമാരുടെ മുലപ്പാൽ തന്നെ അവര്ക്ക് കൊടുക്കാനും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നവജാത ശിശുക്കളുടെ സംരക്ഷണം എന്നു പറയുന്നത് വളരെ ദുര്ഘടമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് നമ്മള് അത്യ അതീവ ജാഗ്രതയോടെ തന്നെ ചെയ്യേണ്ടൊരു കാര്യമാണ് കാര്യം ശിശുക്കളുടെ കുഞ്ഞുങ്ങൾ എന്നു പറയുമ്പോൾ അതുപോലെ കെയര് ആവശ്യമുള്ള ഇതാണ് അപ്പം നമ്മളതിന് വേണ്ടി തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ തന്നെ ചെയ്യണം